നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ചാനലുകൾ ഉണ്ട് അതായത് കൈരളി ചാനല് മാതൃഭൂമി ചാനല് എന്നാ അങ്ങനെയോരോരോ ചാനലുകളുണ്ട് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് ഇത് എല്ലാമുണ്ട് ഇതിനകത്തെല്ലാം വാർത്തകളോരോ കാര്യങ്ങളും പറയും ബട്ട് അതെല്ലാം ഇങ്ങനെ വ്യത്യസ്തവായിട്ടാണ് ഒര് ചാനലിൽ പറയുന്ന വാർത്ത അതേപടിയൊന്നും ആയിരിക്കില്ല അടുത്ത ചാനലിലോട്ട് നമ്മളത് വെച്ച് കഴിയുമ്പോൾ വരുന്നത് അങ്ങനെ മാധ്യമം പ്രാദേശീയ ചാനലുകൾ പല രീതിയിലും പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങള് പിന്നെ എന്നാന്ന് ചോദിച്ചാല് കൈരളിച്ചാനല് എന്നാ നമുക്ക് ഏറ്റവും കേട്ടിരിക്കാനും സ്വാഭാവികമായിട്ടും നമുക്ക് വാർത്തകൾ കൂടുതലായിട്ട് അറിയുന്ന അത് ആ ഒരു മാധ്യമം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഏഷ്യാനെറ്റ് ചാനൽ തന്നെയാണ് അത് വാർത്തയുടെ കാര്യത്തില് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഉണ്ട് ജനം ടി വി ഉണ്ട് കൈരളി ടിവിയുണ്ട് ഇതെക്കെയോരോ സംഭവങ്ങളെന്ന് പറഞ്ഞാല് ഇതെല്ലാമോരോ രാഷ്ട്രീയ കാര്യങ്ങള് പ്രത്യേകിച്ചു പ്രത്യേകിച്ചിങ്ങനെ പറയുന്ന ചാനലുകളാണ് അതൊക്കൊഴിവാക്കിക്കൊണ്ട് പറയുന്നതാണ് ഏഷ്യാനെറ്റ് ചാനലിലേത് നമുക്ക് വാർത്ത കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ചറിയാൻ പറ്റും അങ്ങനെ ഒക്കെയാണ് ചാനലുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെയോരോ ഓരോ ചാനലും ഓരോ വാർത്തയും പലതരം പല പല രീതിയിലായിരിക്കും പറയാറ് പതിവ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ കുഴപ്പമില്ല എല്ലാ ചാനലും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല

ഇല്ലാത്ത സംഭവം കൂടെ അവര് കൂട്ടിച്ചേർത്ത് വാർത്തക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചാനലുകാരാണ് ഏതൊരു പ്രശ്നമുള്ളത് വഷളാക്കുന്നതും നല്ലതാക്കുന്നതും എല്ലാം അത് നമുക്ക് പല പല കാര്യങ്ങളും കൊണ്ടറിയാം പല പല വാർത്തകളും എല്ലാം എന്തൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ചാനലുകാർ ചെല്ലുന്നു അവര് നമ്മള് മനസ്സിൽപ്പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചവര് ചോദിക്കുന്നു അതവര് റെക്കോർഡ് ചെയ്യുന്നു അവരതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് അങ്ങനെയവര് അത് ചെയ്യ്ന്നത് മിക്കവാറും ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇവര് എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചാനലുകാരാണല്ലോ എന്ന് വരെ നിസാര പ്രശ്നങ്ങള് പോലും ഇവര് പല ചാനലുകാര് ഒര് ചാനലുകാര് ഒര് ചാനലുകാരെ മികച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവര് അവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതങ്ങനെയങ്ങ് വഷളാക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ മറ്റേ ജനം ടിവിയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കില് അത് അത് കൈരളി ഇതെല്ലാം കൂടുതലും അതിന് പ്രാമുഹ്യം കൊടുക്കുന്നത് മുഴുവനും വാർത്തയ്ക്ക് ഈ രാഷ്ട്രീയ വാർത്തകൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ജനങ്ങളുടെ ഇതിലോട്ട് കൂടുതലായിട്ട് ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കില് എന്താന്ന് പറഞ്ഞാല് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏറ്റവും മെച്ചം സാധാരണക്കാർക്ക് മനസിലാകുന്ന രീതിയിൽ പറയുന്നതും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒക്കെയാണ് അത് വേറെ ജനങ്ങള് എന്താണെന്ന് പറഞ്ഞാലും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ ടി വി ഒന്ന് ഓൺ ആക്കി അതില് രാവിലത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് അത് കുഴപ്പമില്ലാത്ത ചാനലാണ് മാതൃഭൂമി ഏഷ്യാനെറ്റ് മാതൃഭൂമി അതൊക്ക വലിയ കുഴപ്പമില്ലാത്ത ചാനലുകളാണ് അങ്ങനെ ഒക്കെയാണ് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലാണെങ്കില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിപ്പം സീരിയലാണ് വൈകുന്നേരം ആറ് മണി മുതല് സീരിയലുകൾ അങ്ങോട് തുടങ്ങിയാൽ അതങ്ങനെ പിന്നെ മറ്റേ ഏതാ അതിനകത്തെ വാർത്തകളിഷ്ടം ടി വി ഓൺ ആക്കുന്നത് തന്നെ ചാനല് ഓൺ ആക്കുന്നത് തന്നെഈ സീരിയല് കാണാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർക്ക് രാവിലത്തെ രാവിലെ മുതല് ജോലികളും കാര്യങ്ങളും എല്ലാം നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വിശ്രമം എല്ലാത്തിൽ നിന്നും കുടുംബത്തില് ചിന്തകളിൽ നിന്നെല്ലാം വിട്ട് നിൽക്കാനായിട്ട് ഒരു മനസ്സിനൊരു സന്തോഷം എല്ലാം കാണുന്നതിനായിട്ട് അത് പിന്നെ നമ്മടെ ഫ്ളവേഴ്സ് ചാനല് പറയാതിരിക്കാമ്പറ്റില്ലാത്തൊരു ചാനലാണ് ഫ്ലവേഴ്സ് ചാനല് ഫ്ലവേഴ്സ് ചാനൽല് നമ്മള് കുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ടെൻഷനുകള് ഉണ്ടെങ്കിലും നമ്മളതെല്ലാം മറന്ന് പോയിട്ട് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്നതാണ് നമ്മുടെ എം ജി ശ്രീ ശ്രീകുമാറിൻറ്റെയൊക്കെ മറുപടികളായിട്ട് അവരുടെ കമൻറ്റ്കളും എല്ലാം കേൾക്കുമ്പം അങ്ങനെ അങ്ങനെ ഉണ്ട് ഓരോ കാര്യങ്ങള് പിന്നെ നമ്മുടെ ചാനലിനകത്ത് മറ്റേ ഒര് ചിരി ഇരുചിരി ബമ്പർ ചിരി അതാണെങ്കിൽ തന്നെ നമ്മളേ ഒരുപാട് ജനങ്ങള് വന്ന് നമുക്ക് നമ്മുടെ ടെൻഷനുകളെല്ലാം മറന്ന് നമ്മള് നമ്മളറിയാതെ ചിരിച്ച് പോകുന്ന പല പല സാഹചര്യങ്ങള് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ് ചാനലുകൾ എല്ലാം ഒര് തരത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ രാവിലെ മുതലെ ഇങ്ങനെ ഈ എന്നാ ഓരോ ജോലികളും കാര്യങ്ങളും ഓരോ ടെൻഷനുകളും എല്ലാമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ജോലികള് കഴിഞ്ഞിട്ട് നമ്മള് ടിവിയുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം നല്ല നല്ല പരിപാടികള് നമ്മള് കാണുമ്പോൾ നമുക്ക് അതിനെന്താ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട് അതൊക്കെ ഇത്രയൊക്കെ ഉള്ളു